ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുവരുന്നത് കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മൾ ചന്ദ്രയാനാണെങ്കിലും മംഗൾയാൻ ആണെങ്കിലും വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളെ ഇതിൽക്കൂടുതൽ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം ഉണ്ടാവില്ല കാരണം എല്ലാവർക്കും പറ്റുന്ന എല്ലാ രാജ്യക്കാർക്കും പറ്റുന്നൊരു കാര്യമല്ല ചന്ദ്രനിലേക്ക് ഒരു ഒരു വിക്ഷേപണം നടത്തുകയോ അല്ലെങ്കിൽ സൂര്യനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അതിന് വേണ്ടി ഒരു വിക്ഷേപണം നടത്തും അതൊക്കെ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമൊന്നും അല്ല അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാൻ വേണ്ടി തീർച്ചയായിട്ടും ഇന്നത്തെ ടെ ഇന്നത്തെ ആ ഒരു കാലഘട്ടം ഒരുപാട് വളർന്നൊരു കാലഘട്ടം തന്നെയാണ് നമുക്ക് ടി വിയിലൂടെ അറിയാൻ പറ്റും ഇന്നത്തെ കാര്യങ്ങൾ അതുപോലെ ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഇൻ്റർനെറ്റിലൂടെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലഭ്യമായിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉണ്ട് അതുവഴിയൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ശാസ്ത്രത്തിന് ശാസ്ത്രത്തെക്കുറിച്ചും സാങ്കേതിക വിദ്യയെകുറിച്ചും നമുക്ക് അറിയാൻ പറ്റും